എനിക്ക് പോയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോടാണ് എത്ര കുറേ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടെങ്കിലും എനിക്ക് ഏറ്റവും പോവാനും ഇഷ്ടം കോഴിക്കോടേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടേക്ക് പോകുന്ന ആ ട്രെയിൻ യാത്ര എനിക്ക് വളരെ ഇഷ്ടമാണ് അതുകഴിഞ്ഞ് അവിടുന്ന് ഇറങ്ങി നേരെ മിക്കവാറും ഞാൻ കോഴിക്കോടേക്കാണ് പോവണമെങ്കിൽ വൈകുന്നേരം സമയത്തൊക്കെയാണ് ഞാനവിടെ എത്തണമെങ്കിൽ എന്തായാലും ഞാൻ ആദ്യം പോവുന്ന സ്ഥലമാണ് അവിടുത്തെ ബീച്ച് കോഴിക്കോട് ബീച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബീച്ചിൽ പോയി വെറുതെ ഇരിക്കാൻ നൻ നല്ല രസമാണ് അവിടെ ഇരുന്നും കൊണ്ട് ഓരോ കാഴ്ചകൾ കാണാനും അവിടെ ഇരുന്നുകൊണ്ട് എല്ലാം കാണാൻ തന്നെ നല്ല രസമാണ് നമ്മുടെ അത് കൺ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സ് ശാന്തമാവും ഇനി ഇരിക്കുന്നത് പോവട്ടെ നമുക്ക് വേണമെങ്കിൽ എത്ര നേരം വേണമെങ്കിലും കളിക്കാം അതിനൊന്നും അവിടെ ഒരു പരിമിതി ഇല്ല വെള്ളത്തിൽ നമുക്ക് നമ്മുടെ കൂട്ടുകാരുടെ കൂടെ കുറേ നേരം കളിച്ചിരിക്കാൻ തന്നെ നല്ല രസമാണ് സമയമൊക്കെ പെട്ടെന്ന് പോവും അതുകൊണ്ടെനിക്ക് കോഴിക്കോട് പോവാൻ വളരെ ഇഷ്ടമാണ് പിന്നെ ബീച്ചിൻ്റെ കാര്യം അല്ലാണ്ട് പറയുവാണെങ്കിൽ എനിക്ക് അടുത്ത ഇഷ്ടം അവിടുത്തെ മിട്ടായി തെരുവാണ് ആ മിട്ടായി തെരുവിലോട്ട് കയറിക്കഴിഞ്ഞാൽ എന്തോരം കടകളാണ് എല്ലാം നല്ല കുറഞ്ഞ പൈസയ്ക്കും ആൾക്കാർ നമ്മളെ അങ്ങനെ മാടി മാടി വിളിക്കുക ചെയ്യുക ഓരോ സാധനങ്ങൾ വാങ്ങാൻ അതിപ്പം ഡ്രസ്സിൻ്റെ കാര്യമായിക്കോട്ടെ ഫുഡിൻ്റെ കാര്യമായിക്കോട്ടെ അങ്ങനെ പല സാധനങ്ങളും അവിടെ ഉണ്ട് അതുകൊണ്ട് എല്ലാം വിലക്കുറവിലിട്ടുണ്ട് നമുക്കെല്ലാം വേണമെങ്കിൽ അവിടുന്ന് തന്നെ വാങ്ങി തീർക്കാൻ പറ്റും അത്രയും കുറഞ്ഞ പൈസയ്ക്ക് തന്നെ അവിടുന്ന് കിട്ടും നല്ല സാധനങ്ങളായിരിക്കും അവിടുന്ന് കിട്ടുക നല്ല കളക്ഷൻസ് ഉണ്ടാവും പിന്നെ അടുത്തത് പറയാനാണെങ്കിൽ അവിടുത്തെ ഹോട്ടലുകൾ അവിടുത്തെ ഹോട്ടൽ അവിടുത്തെ ഒക്കെ ബിരിയാണി ഓ എന്ത് ടേസ്റ്റ് ആണ് അവിടുത്തെ ബിരിയാണിയും ഇവിടുത്തെ ബിരിയാണി ഒന്നും നമുക്ക് ഇങ്ങനെ കംമ്പയർ ചെയ്യാനേ പറ്റില്ല അവിടുത്തെ ബിരിയാണിക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് മിക്കവാറും ഏത് കടയിൽ പോയാലും അതെ അവിടുത്തെ എല്ലായിടത്തേയും ബിരിയാണി നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ അവിടെ ഒരു മെമ്മറൈസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കട ഉണ്ട് ആ മെമ്മറൈസ് എന്നുള്ള കടയ്ക്കും ഈ ബീച്ചിലേക്ക് പോയ ശേഷം എനിക്ക് എപ്പോളും പോവാനിഷ്ടം ഈ മെമ്മറൈസ് എന്ന് പറഞ്ഞിട്ടുള്ള കടയ്ക്കാണ് ഇങ്ങോട്ടൊക്കെ പോവുമ്പോൾ നല്ല രസമാണ് പിന്നെ ഇവിടെ ഉള്ളത് മാനാഞ്ചര സ്ക്വയർ നമ്മുടെ കോഴിക്കോടിൻ്റെ ഹൃദയം എന്ന് പറയുന്ന സ്ഥലമാണ് ഈ മാനാഞ്ചര സ്ക്വയർ ഇവിടേക്കൊക്കെ പോവാൻ തന്നെ നല്ല രസമാണ് ഇതുകൊണ്ടാണ് എനിക്ക് കോഴിക്കോട് പോവാൻ ഇത്ര ഇഷ്ടം